ഹലോ ആ ഇലക്ട്രിഷ്യൻ ആണോ ആ എൻ്റെ വീടിന് നമ്മുടെ ചെത്തിപ്പുഴയിലാണ് ഞാൻ താമസിക്കുന്നതേ ആ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിന് നേരെ ഓപ്പസിറ്റ് ആയിട്ടാണെൻ്റെ വീടേ അപ്പോൾ എനിക്ക് ഒരു മോട്ടറ് അത്യാവശ്യമായിട്ട് മോട്ടറ് വെക്കണവേ അപ്പം എന്നാൽ വീട് വരെ ഒന്ന് വരാനായിട്ട് പറ്റുമോ ആ വെള്ളം പമ്പ് ചെയ്യുന്ന കിണറ് ആണേ കിണറ്റിലേക്ക് മോട്ടറ് ഇടാനായിട്ട് ഉള്ളതാണേ ആ അപ്പോൾ പോയപ്പോൾ ഞങ്ങൾക്കേ ഒന്ന് കയറി താമസിക്കുന്നതിന് അത്യാവശ്യമായിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് വരണേ വരണം എനിക്ക് നാളെ കയറി താമസം ഇത് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിന് ചെത്തിപ്പുഴ ഹോസ്പിറ്റലിന് ഓപ്പസിറ്റ് ആയിട്ട് വരുവേ ആ എൻ്റെ പേര് ആ ചെത്തിപ്പുഴ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി ആ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ആ ഓപ്പസിറ്റ് ആ എൻ്റെ എൻ്റെ പേര് എൻ്റെ പേര് ലാലിമ ടോമി എന്നാണേ ഞങ്ങളുടെ വീട്ട് പേര് കാലായിൽ അപ്പം ആ വക്കച്ചൻപടിക്കൽ വന്ന് ഹോസ്പിറ്റലിന് നേരെ വന്നിട്ട് ചോദിച്ചാൽ മതിയേ അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ പേര് എഴുതിയിട്ടുണ്ട് കാലായിൽ എന്ന് പേര് എഴുതിയിട്ടുണ്ടേ ഓക്കെ ഓക്കെ ഓക്കെ ആ ഒരു അയ്യോ അയ്യോ എനിക്കേ അല്ല എനിക്ക് അത്യാവശ്യം ആയിരുന്നു അതുകൊണ്ടാണേ ഞങ്ങൾക്ക് നാളെ കഴിഞ്ഞ് കയറി താമസം ആണേ എത്ര രൂപയാവും അതെ അതെ അതെ കിണറ് കിണറ് കിണറ്റിൽ ഇറക്കാനുള്ള മോട്ടറാ ആ

അല്ല വാങ്ങിച്ചോ ആ നിങ്ങൾ തന്നെ വാങ്ങിച്ചോ എന്നിട്ട് ബില്ല് പറഞ്ഞാൽമതി ആ വി ഗാർഡിൻ്റെ നല്ല കമ്പനീടെ തന്നെ നല്ല കമ്പനീടെ തന്നെ മോട്ടറ് വാങ്ങിച്ചോ ഓക്കെ ഓക്കെ അത്യാവശ്യമാണ് പെട്ടെന്ന് വരണേ കേട്ടോ ആ പൈപ്പിൻ്റെ ഫിറ്റിംഗ്സും എല്ലാം കൂടെ കൂട്ടി വാങ്ങിച്ചിട്ട് എനിക്ക് ഇത് തന്നാൽമതി ബില്ല് തന്നാൽമതി ഞാൻ പേ ചെയ്തുകൊള്ളാം ആ ഓക്കെ ആ ഉവ്വ് കൂടെ ഉണ്ടാവും അല്ലേ ആ അ അ ഓക്കെ ഓക്കെ ഓക്കെ ആ നാളത്തേക്ക് ഓക്കെ നാളെ ഉച്ച കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പം ഇല്ല നാളെ ഉച്ച കഴിഞ്ഞ് വരണം കാരണം പിറ്റേന്ന് ഞങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ പെര വാർക്കല് നടത്തേണ്ടതാണേ ഓക്കെ